മറ്റു പട്ടണങ്ങളെ അപേക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നമ്മളെ നമ്മുടെ ഈ നാട്ടിലെ സ്കൂളുകളെന്നു പറയുമ്പോൾ വളരെ മോശമായ രീതിയിലും ഉണ്ട് എന്നാൽ അതിലുപരി നല്ല രീതിയിലും നടന്നു പോകുന്നുണ്ട് സ്കൂളുകളിൽ ബാക്കിയുള്ള സ്കൂളുകളിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നീറ്റ് പോലുള്ള എൻട്രൻസ് ഹയർ സ്റ്റഡീസിനായിട്ടുള്ള എൻട്രൻസ് എക്സാമിൻ്റെ കോച്ചിങ്ങുകള് യു പി സെക്ഷൻ മുതലേ കൊടുത്തു വരുന്നുണ്ട് പക്ഷേ എന്നാൽ നമ്മളെ സ്കൂളുകളിലും നമ്മളെ ഈ നാട്ടിൻപുറത്തെ സ്കൂളുകളിലും ഒക്കെ അത് ഇതുവരെ സ്ഥാപിതമായിട്ടില്ല അപ്പോള് എൻട്രൻസിൻ്റെയും നീറ്റിൻ്റെയും ഈ സ്കോർ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പർ ആയിട്ടുള്ളത് ഇങ്ങനെ ബാക്കിയുള്ള സ്കൂളുകളിൽ നിന്നും പുറത്ത് സ്കൂളുകളിൽ നിന്നും എട്ടാം ക്ലാസ്സ് മുതലേ എട്ടാം ക്ലാസ് മുതലോ അല്ലെങ്കിൽ ഏഴാം ക്ലാസ് മുതലോ ഈ നീറ്റിൻ്റെ ട്രെയിനിങ് കിട്ടി വരുന്ന കുട്ടികൾക്ക് മാത്രമാണ് കിട്ടിപ്പോകുന്നത് അപ്പോള് നമ്മളെ ഈ നാട്ടിന്പുറത്തുള്ള ഓരോ എൻട്രൻസുകളെല്ലാം എഴുതുന്ന കുട്ടികൾക്കും സ്കോര് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ ഇതിൽക്കൂടെ ഈ പഠനത്തിൽ കൂടെ ഈ എൻട്രൻസിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ് അതുപോലെതന്നെ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ രാജ്യങ്ങളിലും നോക്കിയാൽ കാണും വിവിധ വിവിധ തലങ്ങളിലേക്ക് കുട്ടികൾ പോകുന്നത് കാരണം നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യ മാത്രമാണ് ഫുട്ബോളിൽ പങ്കെടുക്കാത്തത് കാരണം ഇവിടെ ഇവിടെ എന്ന് പറയുമ്പോൾ കഴിവുള്ള കുട്ടികളുണ്ട് എന്നാൽ അവരുടെ കഴിവ് പുറത്തെടുക്കാൻ ആയിട്ട് ഉള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മളെ നാട്ടിലില്ല നമ്മുടെ നാട്ടിൽ എന്ന് പറയുമ്പോൾ പുസ്തകം പഠിച്ച് പുസ്തകം പഠിച്ച് എന്തെങ്കിലും വലിയൊരാളാകണം എന്ന് മാത്രേ ഉള്ളൂ അല്ലാതെ അവര് ഈ കുട്ടികളുടെ കഴിവനുസരിച്ചുള്ള ഓരോ ഫെസിലിറ്റിസും ഒരു സ്കൂളിലും ഇല്ല അപ്പോൾ ഒരു പ്ലേ ഗ്രൗണ്ട് പോലുമില്ലാത്ത സ്കൂളുകള് ധാരാളമായും കേരളത്തിൽ ഉണ്ട് അതുപോലെതന്നെ ഈ സ്കൂളുകളിൽ നിന്നും സ്പോർട്സിന് കൊണ്ടുപോകുന്നതും വളരെ തുച്ഛമായിട്ടാണ് എല്ലാ കുട്ടികൾക്കും ഇത് പങ്കെടുക്കാനുള്ള അവസരങ്ങൾ കൊണ്ടുവരണം എന്നാൽ ചില ഇത് കൊണ്ടുവരാതെ ചില കുട്ടികൾക്ക് മാത്രം പങ്കെടുത്ത് ഉയർന്നു പോകാനുള്ള അവസരങ്ങൾ മാത്രമുണ്ട് അതുപോലെ കലാ കായിക പരമായിട്ടുള്ള ഓരോ കാര്യങ്ങളും എല്ലാ സ്കൂളുകളിലും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം മുഴുവനായിട്ട് തന്നെ മാറ്റാനുണ്ട് ബാക്കി നല്ല കാര്യം എന്ന് പറയുമ്പോള് നമ്മുടെ സ്കൂളുകളില് എല്ലാ കുട്ടികളും അച്ചടക്കത്തോടുകൂടിയാണ് പഠിച്ചുവരുന്നതും അതിലെ സിലബസുകൾ നല്ലത് അതുപോലെ തന്നെ ടീച്ചർമാരെ കെയറിങ്ങും ഒരു കുട്ടിക്ക് കുട്ടിയുടെ സ്കൂൾ ജീവിത കാലം മുതൽ അവരുടെ സ്കൂൾ അവസാന കാലം വരെയും അവർക്ക് നല്ല നല്ല അനുഭവങ്ങളും നല്ല നല്ല കാര്യങ്ങളും മാത്രമാണ് ഓരോ സ്കൂളുകളിൽ നിന്നും പറഞ്ഞു കൊടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത്